നമ്മുടെ പ്രദേശത്ത് മൃഗപരിപാലനരീതി എന്ന് വെച്ചാൽ പശുവിൻ്റെ ആല രാവിലെ വൃത്തിയാക്കി പശുക്കൾക്ക് ആവശ്യമായ വെള്ളവും കാടി വെള്ളവും പുല്ലും കൊടുക്കുകയും ചെയ്യുന്നു കൂടാതെ അവരുടെ ചാണകവും കോരി മാറ്റി വയ്ക്കുന്നു ഇതിൽ നിന്ന് നമുക്ക് കൃഷിക്ക് വേണ്ടി പ്രാദേശികമായി ലഭിക്കുന്ന ജൈവവളമാണ് ചാണകവും ഗോമൂത്രവും ചാണകം നല്ല ഒരു ജൈവവളമാണ് അത് ഉപയോഗിച്ച് ചെടികൾക്ക് ഇട്ട് കൊടുക്കുകയും കൃഷിക്ക് ആവശ്യമായി കൊണ്ടുപോവുകയും ചെയ്യുന്നു അതുപോലെയാണ് പശുവിൻ്റെ ഗോമൂത്രവും അത് കൃഷിക്കാവശ്യമായി ഉപയോഗിക്കുന്നു കൂടാതെ കീടനാശിനിയായി ഉപയോഗിക്കുകയും ചെയ്യുന്നു ചില നാട്ടിൽ ഗോമൂത്രം നാട്ട് വൈദ്യശാലകളിൽ മരുന്നായി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ചാണകത്തിന് ഗോമൂത്രത്തിനും പല പല ഉപഭോക് ഉപയോഗങ്ങൾ ഉണ്ട് അതുപോലെ തന്നെയാണ് പശു നമുക്ക് തരുന്ന പാൽ വിറ്റാമിനോട് കൂടിയ പാലാണ് പശുവിൻ്റെ ഇത് പാലിൽ നിന്ന് വെണ്ണ കിട്ടുന്നു അതിനു മുൻപ് തൈരാണ് കിട്ടുന്നത് തൈര് വേർതിരിച്ച് വെണ്ണ കിട്ടുന്നു വെണ്ണ നല്ലൊരു സ്വാദിഷ്ടമായ ഫലഭൂയിഷ്ടമായ ഒരു ഭക്ഷണമാണ് ഇത് ചെറു കു ചെറിയ കുട്ടികൾക്ക് നൽകുന്നത് വളരെ നല്ലതാണ് അതുപോലെ മോര് ഉണ്ടാകുന്നു മോര് കൂടാതെ തൈരും ലഭിക്കുന്നു ഇവയ്ക്ക് ഈ ഇവയ്ക്ക് ഈ വെണ്ണ തൈര് മോര് തുടങ്ങിയവ വിപണിയിൽ കൊടുക്കുകയും വിൽക്കുകയും ചെയ്യാം അതുപോലെ ചാണകം ഗോമൂത്രമൊക്കെ കിട്ടുന്നത് കൊണ്ട് തൊഴിൽ മികച്ചതും ഫലഭൂയിഷ്ടത കാ കാർഷിക വിളകൾക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്